ഹലോ

ആ ഞാൻ ഡോണയാണ് സംസാരിക്കുന്നത് മലപ്പുറത്ത് നിന്നായിരുന്നു ആ ഞാൻ ഒരു ഞാൻ പുതിയ ഒരു സിം എടുക്കുന്നതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ജിയോുടെ ഓഫേഴ്സ് ഒന്ന് പറയാമോ കൺവേർട്ട് ചെയ്യാനല്ല പുതിയ സിം എടുക്കാനായിട്ടായിരുന്നു ആ ആ ജിയോയുടെ ഓഫീസിൽ അല്ലേ

വേറെ എന്തെങ്കിലും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തേക്കാണോ വൺ ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ ഓക്കെ മന്ത്ലി ആണെങ്കിലോ മന്ത്ലി വരുന്ന പ്ലാൻസോ ആണോ ആ ഇപ്പം ജിയോയ്ക്ക് ഒരു പുതിയ ഓഫർ വന്നിട്ടുണ്ടല്ലോ ഫൈവ് ജി ഉള്ള അടുത്ത് ഫ്രീ ആയിട്ടുള്ളത് അതിന് എത്ര രൂപ അടയ്ക്കണം ഫൈവ് ജി ആ അതായത് ഇപ്പോൾ ഫൈവ് ജി നെറ്റ് ഉള്ളിടത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് പോലെ വന്നിട്ടുണ്ടല്ലോ എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നത് പോലത്തെ ഓഫർ മന്ത്ലി അല്ലേ ഓ

ആണല്ലേ അപ്പം നമ്മുടെ ഈ ജിയോയുടെ ഓഫീസ് എവിടെ ആയിട്ടാണ് വരുന്നത് മലപ്പുറത്ത്

ആ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെന്ററിൽ പോയാൽ മതിയോ അതോ ജിയോയുടെ തന്നെ സെന്ററിൽ വരണോ ആ നമ്മൾ ഇപ്പം വേറൊരു കമ്പനിയിൽ നിന്ന് ജിയോയിലേക്ക് മാറ്റുവാണെങ്കിലും സെയിം പ്ലാൻ നമുക്ക് കിട്ടുമോ വേറൊരു സിം പോർട്ട് ചെയ്ത് മാറ്റിയാൽ ആ അങ്ങനെ ആ അങ്ങനെ ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് ആകും സിം ആ ആണോ ഓക്കെ അത് അറിയാൻ വേണ്ടി വിളിച്ചതാണേ ഓക്കെ താങ്ക്യൂ ഓക്കെ ഓക്കെ താങ്ക്യൂ മാം